ഞങ്ങളെ പ്രദേശത്ത് ഒരു പാല മരമുണ്ട് ആ പാലമരത്തിൽ യക്ഷി കുടികൊള്ളുന്നുണ്ടെന്നാണ് പ്രദേശവാസികൾ വിശ്വസിക്കുന്നത് പ്രദേശവാസികളെന്നു പറഞ്ഞാൽ എല്ലാവരും വിശ്വസിക്കുന്നില്ല കുറച്ചാൾക്കാർക്ക് ഭയങ്കരമായിട്ട് അന്ധമായിട്ടവർ വിശ്വസിക്കുന്നുണ്ട് അവിടെ ആ മരത്തിൽ യക്ഷി വസിക്കുന്നുണ്ടെന്നോ പിന്നെ ചില രാത്രികാല പാതിരാസമയങ്ങളിൽ ചില ആൾക്കാർ യക്ഷികളെ കണ്ടിട്ടുണ്ടെന്നോ യക്ഷി വെള്ള വസ്ത്രമെല്ലാം ധരിച്ച് മുടിയെല്ലാം അഴിച്ചിട്ടിട്ട് നടന്നു പോകുന്നത് ചില ആൾക്കാർ കണ്ടെന്നും ചില ആൾക്കാറെ ശല്യപ്പെടുത്തുന്നുണ്ടെന്നും അങ്ങനെ എല്ലം പറയുന്ന കേൾക്കുന്നുണ്ട് ചില ആൾക്കാർ വിശ്വസിക്കുന്നും ഉണ്ടത് രാത്രി വാഹനംകൊണ്ടെല്ലാം ആ റോഡിൽക്കൂടി വരുമ്പോൾ എത്രയോ ആൾക്കാർ പറയുന്നുണ്ട് അങ്ങനെ കണ്ടിട്ടുണ്ടെന്ന് പന്ത്രണ്ട് മണി സമയത്തെല്ലാവരും കണ്ടിട്ടുള്ള അപ്പം അത് കൂടുതലാൾക്കാറും അത് വിശ്വസിക്കുന്നുണ്ട് പ്രദേശത്തുള്ള കൂടുതൽ ആൾക്കാർക്കും വിശ്വാസം ആണത് ആ യക്ഷീനെ കുറേ ആൾക്കാർ കണ്ടതുകൊണ്ട് അവർ അന്ധമായിട്ട് വിശ്വസിക്കുന്നുണ്ട് അവർ പറഞ്ഞ അറിവ് വച്ചിട്ട് ബാക്കിയുള്ളവരും വിശ്വസിക്കുന്നുണ്ട് കണ്ടവർ അതിനെപ്പറ്റിയിട്ട് അവർ നല്ല വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഇങ്ങനെ പോകുന്ന കാണുന്നുണ്ട് മുടി അഴിച്ചിട്ടിട്ട് നടന്നു പോകുന്നതാണ് കണ്ടത് അങ്ങനെ ഓരോ ആൾക്കാരും കണ്ട ഓരോ ആൾക്കാരും പറയുമോ അത് പ്രദേശവാസികളെ ഏകദേശം കൂടുതൽ ആളുകളും അത് വിശ്വസിക്കുന്നുണ്ട്